പരമ്പരാഗത രൂപമായ പേനയും പേപ്പറുമുപയോഗിച്ച് എഴുതുവാൻ അതേപോലെ തന്നെ ലാപ്പ് ടോപ്പ് മൊബൈല് തന്നെ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യാനും എനിക്കിഷ്ടമാണ് പരമ്പരാഗതമായ രീതിയായ പേനയും പേപ്പറും ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് പക്ഷേ ഈ പേനയും പേപ്പറും ഉപയോഗിക്കുന്നതിലൂടെ അതിനതിൻറ്റേതായ ഒരു സൗന്ദര്യവും ഉപയോഗരീതിയിൽ ഒരു സുഖങ്ങളും അതായത് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഫീലിങ്ങും മറ്റും ഈ ലാപ്പ് ടോപ്പും മൊബൈലും ഉപയോഗിക്കുമ്പോള് തോന്നാറില്ല പക്ഷേ കൂടുതൽ നമുക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ലാപ്പ് ടോപ്പും മൊബൈൽ ഫോണുമാണ് കൂടുതൽ നന്നായിട്ടുള്ളത് എന്നും തോന്നാറുണ്ട് പിന്നെ പുസ്തകം വായിക്കുന്നതിലൂടെ കൂടുതൽ ഇപ്പോള് നമ്മുടെ ആരോഗ്യം നോക്കുകയാണെങ്കിൽ തന്നെ കണ്ണിന് ഉള്ള പ്രശ്നങ്ങൾ ഈ മൊബൈൽ ഫോണ് ആപ്പുപയോഗിക്കുന്നതിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷേ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യപരമായിട്ടാണെങ്കിലും അല്ലങ്കിലും കൂടുതൽ നല്ലത് പിന്നെ പുസ്തകം വായിക്കുന്നതാണെന്ന് പേന പുസ്തകം എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനമാണെന്നും തോന്നിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ നമ്മളെ പദ്ധതികളും പ്രവൃത്തികളും വേഗത്തിലാക്കാൻ കൂടുതൽ ഉപകരിക്കുന്നത് ലാപ്പ് ടോപ്പ് കൂടുതൽ വസ്തുക്കൾ സൂക്ഷിച്ച് വയ്ക്കാനും വളരെ കുറഞ്ഞ സ്ഥലസൗകര്യം മാത്രം മതിയായ ലാപ്പ് ടോപ്പുകളും മൊബൈലുകളുമാണ് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട്